ചിത്രരചന പഠിപ്പിക്കാൻ ഞങ്ങളുടെ സ്കൂളിൽ ഒരു ടീച്ചറുണ്ടായിരുന്നു ആ ടീച്ചറാണ് ഞങ്ങളെ ഒക്കെ ചിത്രരചനയുടെ ബാലപാഠങ്ങൾ പഠിപ്പിച്ച് തന്നത് അത് സ്കൂളിൽ ഒന്ന് രണ്ട് കൊല്ലങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളു അതിന് വലിയ അധികം പ്രാധാന്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ അത്രയധികം അനുഭവങ്ങൾ അതിലുമില്ല ഒന്ന് രണ്ട് വർഷം ആന കുതിര അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ വരയ്ക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യമുള്ള രചനകൾ നടത്തി അതിലൊരു വിവരങ്ങള് പറയാം ആ അനുഭവം ഉണ്ടെന്നല്ലാതെ കൂടുതലായിട്ട് അനുഭങ്ങള് ഇല്ല